ശബ്ദത്തിൻ്റെ ക്ഷീണം കൊറച്ച് നമുക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പൊ ഒര് പാട്ട് പാടണമെന്നൊണ്ടെങ്കില് അല്ലെങ്കി എവിടെയെങ്കിലും ഒര് മത്സരത്തിനൊക്കെ പൊണോന്നൊണ്ടെങ്കില് നമ്മള് കൊറച്ച് ദിവസം തൊണ്ടക്ക് റെസ്റ്റ് കൊടുക്കാം ഒത്തിരി ഒച്ചത്തില് സംസാരിക്കാതെയും ഒരുപാട് ഉറക്കെ പാട്ട് പാടി ഇങ്ങനെ നടക്കാതിരിക്കുക പിന്നെ നമുക്ക് എന്തെങ്കിലും തൊണ്ടക്ക് എന്തിലേതിലും പ്രശ്നം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചൂടുവെള്ളം ഒക്കെ കുടിക്കുകയും ചൂടുവെള്ളം കവിൾക്കൊള്ളുക അങ്ങനെയൊക്കെക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ ശബ്ദത്തിന് എന്തെങ്കിലും ഇതുണ്ടാകാതെ അല്ലെങ്കിൽ ശബ്ദം നല്ല ഒരു വോയിസും നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇരട്ടിമധുരം തേനും ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിക്കുന്നതാണെങ്കിൽ നമ്മൾക്ക് നല്ല ശബ്ദത്തിന് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ ശബ്ദം സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനി അഥവാ നമുക്ക് പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾക്ക് തൊണ്ടക്ക് എന്തെങ്കിലും ഇത് ത്രോട്ട് ഇൻഫെക്ഷനോ എന്തേങ്കിലും ഒക്കെ വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ചൂടുവെള്ളം കുടിക്കുക ചൂടുവെള്ളത്തിൽ നിന്ന് ആവിപിടിക്കുക തൊണ്ടയ്ക്ക് അത് കണക്ക് തന്നെ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് ആറ്റിയ വെള്ളം കുടിക്കുകയോ വെള്ളം കാവിൾ ഗാർഗിള് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുക്ക് ആ തൊണ്ടക്ക് അകത്തെ ആ പ്രോബ്ലെംസ് എല്ലാം മാറികിട്ടുന്നതിന് കാരണമാകും നമുക്ക് അതിനെ നമ്മുടെ പിന്നെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾക്ക് നമുക്ക് പാട്ട് പാടണ്ടെതെല്ലാം അവസ്ഥയിൽ നമുക്ക് നല്ല ശബ്ദത്തിൽ പാടാനായിട്ടും അതുകൊണ്ടു തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഇരട്ടിമധുരം നമ്മുടെ തേനിൽ ചേർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അരോചകമായ ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല കിളി പോലത്തെ അല്ല കിളിനാദം ലഭിക്കുന്നതിന് സഹായമാകും ഇനി നല്ല രീതിയിൽ പാട്ട് പാടുന്നതിനും ഇതിനുമൊക്കെ നമ്മളെ സഹായിക്കും അതുകൊണ്ടും ഈ ശബ്ദത്തിന് നമുക്ക് എന്തെങ്കിലും തകരാറ് വന്നാൽ നമുക്ക് ഇങ്ങനെയൊക്ക സംരക്ഷിക്കാൻ ആവും എന്നാണ് എൻ്റെ ഒരു നിഗമനം എൻ്റെ ഒരു അറിവു വച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് മാർഗ്ഗങ്ങളൊന്നും നോക്കാതെ നമ്മുടെ നാടൻ രീതിയിലുള്ള ഈ പച്ചമരുന്നുകളോ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂടുവെള്ളമോ ഒക്കെ കവിൾ കൊള്ളുന്നതായിരിക്കും അത്യുത്തമം എന്നാണ് എൻ്റെ ഒരു നിഗമനം